നക്ഷത്രങ്ങളേയും പ്രപഞ്ചത്തെയൊക്കെയും കുറിച്ച് പഠിക്കുന്നത് നമുക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് അതായത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മള് ചന്ദ്രയാൻ വിട്ടു വിക്ഷേപിച്ചു എന്തിനാണ് ചന്ദ്രനെക്കുറിച്ചറിയാൻ അതിലും നമുക്ക് ഒരു ജീവന് ജീവൻ ജീവാംശത്തിന് വഴിയുണ്ടോ എന്നറിയാനും മറ്റും അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും പറയാനൊക്കെയാണ് നമ്മള് വിട്ടേക്കുന്നത് കാര്യം നമുക്ക് അതിൽ നിന്നും ഒരുപാട് ഉപയോഗങ്ങളുണ്ടാകും നമ്മള് സൂര്യനിലോട്ടു പോകുന്നു ചന്ദ്രനിലോട്ടു പോകുന്നു അവിടെ ജീവംശങ്ങളൊണ്ടോ എന്നറിയാൻ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നറിയാൻ അങ്ങനെ നമ്മള് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യണ്ടത് മാത്രമല്ല നമുക്ക് സാറ്റലൈറ്റിസും വിക്ഷേപിക്കുന്നു നക്ഷത്രങ്ങളേക്കുറിച്ച് നോക്കുന്നു ഇതെല്ലാം നമ്മുടെ നമ്മുടെ ജീവിത രീതിയും നമ്മുടെ ദൈനദിന ജീവിതം കൂടുതൽ സുഖകരമാക്കാനും നമ്മുടെ പ്രശനങ്ങള് പരിഹരിക്കാനൊക്കെ വേണ്ടീയാണ് നമ്മള് ഇങ്ങനെ വിടുന്നത് നമ്മടെ പുതിയ പുതിയ ടെക്നോളജീസ് ഉണ്ടാകും പുതിയ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കാൻ അങ്ങനെയുള്ള കാര്യത്തിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ നക്ഷത്രങ്ങളിലേക്കും പ്രപഞ്ചത്തേക്കും പ്രപഞ്ചത്തേയും കുറിച്ച് എല്ലാം പഠിക്കുന്നത് അതെല്ലാം നമ്മുടെ നമ്മുടെ സൊസൈറ്റിക്കും നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രവർത്തികളാണ്